ഇരുപത് ആറ് രണ്ടായിരത്തി പതിമൂന്ന് നാല് മൂന്ന് രണ്ടായിരത്തി പതിനേഴ് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല്